ഞാൻ ക്രിസ്ത്യൻ മതത്തിലാണേ സീ എസ് ഐലായിരുന്നു ആദ്യമേ എന്നെ വിവാഹം കഴിച്ചത് കാത്തലിക്കിലോട്ടായിരുന്നു സി എസ് ഐ യിലും പ്രാർത്ഥനാക്കൂട്ടായ്മേം കുടുംബ കൂട്ടായ്മേം സമൂഹപരമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവിടെയും ഇതുപോലെ പെരുന്നാളാഘോഷിക്കുകയും വീണ്ടും കത്തോലിക്കേൽ വന്നതിന് ശേഷം ഇവിടെയും പെരുന്നാളാഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മയുണ്ട് അതിൽ പങ്കെടുക്കും പിന്നെ സമൂഹത്ത് കൂട്ടായ്മ ഉണ്ട് അതിലും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരുമിച്ച് ഭവന സന്ദർശനമുണ്ട് രോഗികൾക്കായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അതുപോലെ സഭയെന്ന് പറഞ്ഞാൽ ക്യാത്തലിക്ക് കത്തോലിക്കേൽ ക്രിസ്ത്യനുണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിമൊണ്ട് ഓരോത്തർക്കും അവരവരുടെ ആയ തായ പെരുന്നാളുകൾ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പെരുന്നാളുകൾ ആഘോഷിക്കും റാസയും അതുപോലെ തന്നെ പെരുന്നാൾ റാസയും പിന്നെ ഭക്ഷണവും കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം പരിപാടികളക്കെ വെക്കുമ്പോൾ വാർഷികത്തിൽ വാർഷിക പരിപാടി വെക്കുമ്പോൾ അതിനകത്ത് പരിപാടികളെല്ലാം പാട്ട് ഡാൻസ്സ് അങ്ങനെ മറ്റുള്ള പരിപാടികളൊക്കെ വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരിൽ നിന്ന് മറ്റുള്ള മതസ്ഥരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യൻ സഭയെന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ അതിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതം അത്ഭുതങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം അതുപോലെ നമ്മുടെ കാത്തലിക്കിൽ തന്നെ ഞാൻ കൂ പ്രാർത്ഥന കൂട്ടായിമയിൽ പങ്കെടുക്കുകയും അവരുടെ ധ്യാനത്തിൽ പങ്കെടുക്കാറുമുണ്ട് ഒത്തിരിയേറെ ദൈവികാനുഭവം അതിലൂടെ ലഭിക്കാറുണ്ട് മുസ്ലിങ്ങൾ അവരുടേതായിട്ടുള്ള ഇതാഘോഷിക്കും ഹിന്ദുക്കളവരുടേതായിട്ടുള്ള ഇത് ആഘോഷിക്കും നമ്മൾ നമ്മടേതായിട്ടുള്ളതും ആഘോഷിക്കാറുണ്ട് ഒത്തിരിയേറെ ദൈവാനുഭവം ഇതിലൂടെ ഈ മത മതത്തിലൂടെ മറ്റുള്ള മക്കളെ ഒത്തിരി പേരെ ദൈവത്തിലേക്കടുക്കാനും എനിക്കൊത്തിരി ഏറെ അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ഈശോ ചെയ്ത ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ട് രോഗി എനിക്ക് രോഗ സൗഖ്യം ഉണ്ടായിട്ടുണ്ട് എന്റെ അപ്പച്ചന്റെ മരണം പോലും യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മറ്റുള്ള മത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാനും അവർക്ക് ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും എന്നിലൂടെ ഇട ആക്കീട്ടുണ്ട് ഈശോ ചെയ്ത അത്ഭുതങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ മതമെന്ന് പറയുന്നത് ഏറ്റോം വലിയൊരു മതമാണ് നമ്മുടെ ക്രിസ്ത്യൻ മതം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് മറ്റുള്ള മക്കൾലേക്ക് ഇതിലേക്കടുപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ വളരെ വലിയൊരു അനുഭവമാണ് നമ്മുടെ മതത്തിലൂടെ ഒത്തിരിയേറെ മക്കൾ മറ്റുള്ള മതസ്ഥർ പോലും നമ്മുടെ ക്രിസ്ത്യൻലേക്ക് കടന്ന് വന്നിട്ടുണ്ട് ഇതിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് ജീവിത ചൊരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അൽഫോൺസാമ്മ തീർത്ഥാടനത്തിന് പോയപ്പോഴും അവിടെയും ഒത്തിരിയേറെ മക്കൾ മറ്റ് മതസ്ഥർ കടന്ന് വരികേം ദൈവത്തെ അറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഉച്ചഭക്ഷണവും നമ്മുടെ റാസേം വെക്കാറുണ്ട് എല്ലാം പങ്കെടുക്കാറുണ്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ മതം നമ്മളെ ദൈവത്തിലേക്കടുപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാം ഏത് മതമായാലും ഈശോ പറയുന്നത് നിങ്ങളെന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിചിതന്റെ കുരിശുംങ്കൂടെത്തന്റെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത് ഇതിലൂടെ ഒത്തിരിയേറെ മക്കളെ അടുപ്പിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു വീണ്ടും ഇനിയും സ്വർഗ്ഗത്തിലെത്തും വരെയും മറ്റുള്ള മക്കളെ ദൈവത്തിലേക്കടുപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു